ആ ഇത് ട്രാവൽ ഏജൻസി അല്ലെ ഞങ്ങൾ കുറച്ച് ആൾക്കാർ ഇന്നലെ ടൂർ പോകുവാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ അതെ അതെ അതെ ഇന്നലെ ഒരു ഉച്ച ആയപ്പോൾ വിളിച്ചത് ആ അപ്പോൾ രാവിലെ ഏഴുമണി ആവുമ്പോൾ വരാമെന്നാണ് നിങ്ങളെ ഡ്രൈവറ് പറഞ്ഞത് ഡ്രൈവറല്ല നിങ്ങളാണ് പറഞ്ഞത് ഏഴു മണിയാവുമ്പോഴത്തേക്കും ഡ്രൈവറും വണ്ടിയും അവിടെ എത്തിയിരിക്കും എന്നൊക്കെ പറഞ്ഞത് അല്ല ഇതുവരെ ആയിട്ടും എത്തിയിട്ടില്ല അല്ല അവിടെനിന്ന് പൊകുന്നോ ഇല്ലയോയെന്ന് നമുക്ക് അറിയില്ലല്ലോ നിങ്ങളൊന്ന് എന്തെങ്കിലും അപ്ഡേറ്റൊ അങ്ങനെന്തെങ്കിലും ചെയ്യുമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഒന്ന് വിളിക്കുകപോലും ചെയ്തിട്ടില്ല അല്ല അല്ല അതല്ല കുറേ നേരമായിട്ട് ഇവിടെ എല്ലാവരും കൂടി എല്ലാവരും കാത്തിരിക്കുകയാണ് കാരണം എന്തെന്ന് വച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് പോകുന്നയല്ലേ ഒരു ടൂർ അപ്പോൾ അവർക്കൊക്കെ എന്താ പറയുക ഇപ്പോൾ ടൂർ പോകുവാൻ തന്നെ ഒരു താല്പര്യം ഇല്ലാണ്ടായിപ്പോയി കാരണം ഏഴു മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ എത്തിയിട്ടില്ല സമയം ഇപ്പം പത്തുമണിയായി എന്തായാലും ഇനി ഇപ്പോൾ എന്തായാലും പോക്ക് നടക്കില്ല അതുകൊണ്ട് ഞാൻ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് ആ ഓക്കേ ഓക്കേ വേണ്ട വേണ്ട ഇനി വേണ്ട ഇനി വേണ്ട എന്നാൽ ശരി എന്നാൽ വേണ്ട ക്യാൻസൽ ചെയ്തിരിക്കുന്നു ഓക്കേ